ആ ഹലോ ആ പോലീസ്ല്ലേ ആ ഞാൻ കൂട്ടിക്കാനം എന്ന സ്ഥലത്തെന്നാണ് വിളിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷൻ ഏത് കുട്ടിക്കാനം പരിധി വരുന്നതല്ലേ ആ ആ എൻ്റെ പേര് റിതിൽ എന്നാണ് ഞാൻ ഇവിടെ കുട്ടിക്കാനം മറിയൻ കോളനീടെ അടുത്ത് തന്നെ അവിടെ തന്നെ താമസം കുട്ടിക്കാനം മറിയൻകോ ചേർന്ന ആ അതായത് ഒരു ഓപ്പോസിറ്റ് കാണുന്ന എൻ്റെ വീടാണ് അപ്പോൾ സാറെ ഞാൻ വിളിച്ച കാര്യം കാര്യം എന്നാന്നു വെച്ചാൽ ആ ഞാൻ ഒരു ഒരു മാസം ഒരു മാസത്തിന് മേലെ ഞാൻ ആ ഒരു ലോങ്ങ് ഒരു വെക്കേഷന് പോവാന്ന് യു എസ്സിലോട്ട് അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് തന്നെയാണ് പോകണത് അപ്പോൾ ഒരു മാസം വീട് വേക്കൻറ്റായിരിക്കും

ലോങ്ങ് ആ ലോങ്ങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം എന്നും വീടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ

ആ ഓ സംശയാസ്പദമായി തോന്നിയിട്ട് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഈ ഈ അടുത്തിടക്ക് ഇവിടെ രണ്ട് മൂന്ന് മോഷണവും അതുപോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടൊരു ജെസ്റ്റൊരു ഒരു ഒരു പേടി ആ ഒരു പേടി പേടിയായത് കൊണ്ട് ജെസ്റ്റൊന്ന് ഇൻഫോം ചെയ്തെന്നേ ഉള്ളൂ സംശയാസ്പദമായി ആരേലും കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഏ ഇന്നലെ രാത്രിയിൽ ഒരു ഒരു ഏകദേശം ഒരു ഞാൻ സാൻമെയ്ഡ് സിനിമയ്ക്ക് പോയിട്ട് സെക്കൻ ഷോന് തിരിച്ച് വരുമ്പോൾ ഒരു രാത്രി ഒരു രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ഒക്കെ ആയി കാണും ആയിരിക്കും അപ്പം ആ സമയം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി കുറച്ച് കുറച്ച് ആൾക്കാരെ അതായത് ഒന്ന് രണ്ട് പേരെ എല്ലാവരും ഒരു കൂട്ടമാൾക്കാർ കൂടി നിന്ന് ഗേറ്റിൻ്റെ ഫ്രണ്ടെ നിന്ന് സംസാരിക്കേം അങ്ങനൊക്കെ ഒരു ഒരു ജെസ്റ്റ് അത് കാണുമ്പം നമുക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നത് ഒക്കെ പറയില്ലേ ആ ആ അത് പോലത്തെ ഒരിത് ഇല്ല ഇല്ല ഒന്നും തന്നിട്ടില്ല കേമറാക്കി കിട്ടി നിങ്ങൾ ഇപ്പോൾ സമയം ചോദിച്ചാൽ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ഓക്കെ